രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ആറ് ലക്ഷത്തി അൻമ്പത്തീരായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് എട്ട് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്